ആ ജെനെറ്റ് മാർജിൻ ഫ്രീ സൂപ്പർ മാർക്കറ്റ് ആ എല്ലാ സാധങ്ങളും ഉണ്ട് തക്കാളിക്ക് ഇവിടെ പതിനഞ്ച് രൂപയാണ് നമുക്കിപ്പോൾ ഓഫറിൽ വരുന്നുണ്ട് ആ ഓഫറിൽ വരിന്നു ഓഫറിൽ വരുന്നു ആ പെരുന്നാളിൻ്റെ ഓഫറാണ് ആ ചിക്കന് പുറമെ ഇരുന്നൂറ്റി അറുപത് എങ്ങാണ്ടാണ് റേറ്റ് വരുന്നത് നമ്മൾ ഇവിടെ ഇരുന്നൂറു രൂപയ്ക്ക് ആണ് കൊടുക്കുന്നത് അതായത് ഫ്രഷ് ചിക്കൻ ഉണ്ട് പിന്നെ നമ്മളെ ഫ്രീസറിൽ വച്ച ചിക്കനുണ്ട് ഏതാണ് വേണ്ടതെന്ന് വച്ചാൽ ആ ഫ്രഷ് ഇവിടെ നിന്നുതന്നെ നന്നാക്കി എല്ലാം റെഡി ആക്കിത്തരും പിന്നെ വേറെയെന്തെങ്കിലും ആ ബിരിയാണി അരിക്കും റേറ്റ് കുറവാണ് പലതരം ബിരിയാണി അരി ഉണ്ട് നല്ല ആ അതിൽ നിന്ന് ആ ഈ അറുപത്തിമൂന്നു രൂപതൊട്ട് ഇരുന്നൂറു രൂപേൻ്റെ ഇരുന്നൂറു രൂപവരെ ഉള്ള ഇതുണ്ട് ബിരിയാണി അരി ഉണ്ട് അപ്പോൾ ഏതാണ് വേണ്ടതെന്ന് വച്ചാൽ നോക്കി നോക്കി എടുക്കുന്നതായിരിക്കും ബെറ്ററായിട്ട് എനിക്ക് തോന്നുന്നത്

ആ പുറമെ ഉള്ളതിനെക്കാളും വില കുറവാണ് ഇവിടെ ഇപ്പോൾ പെരുന്നാളിൻ്റെ ഓഫറ് ഓഫറുള്ളതുകൊണ്ട് ഏകദേശം എല്ലാ സാധനങ്ങൾക്കും പച്ചക്കറികൾക്കാണെങ്കിലും എല്ലാത്തിനും വിലക്കുറവാണുള്ളത് എല്ലാത്തിനും ഓഫറിട്ടിട്ടുണ്ട് പിന്നെ ഈ അല്ലാത്ത സാധനങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവിന് കോംബോ ഓഫറുണ്ട് അതായത് ഒരെണ്ണം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരെണ്ണം ഫ്രീ കൊടുക്കുന്നത് ഇതൊക്കെ ഉണ്ട് അതായത് ആ നല്ല സാധനങ്ങളാണ് ബ്രാൻഡഡ് സാധനങ്ങളാണ് നമ്മൾ കൊടുക്കാറ് ആ വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ വാഷിങ്ങ് മെഷീൻ ഫ്രിഡ്ജ് ടി വി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് നമ്മൾ ഹോം അപ്ലയൻസ് അപ്ലയൻസെല്ലാം ഉള്ളത് ഉണ്ടോ ആ അതിപ്പോൾ ഓഫറുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആ പറഞ്ഞു വിട്ടാൽമതി അതിനൊക്കെ വിലക്കുറവാണ് അതിന് പിന്നെ ഈദ് ഇതിൻ്റെ ഈദിൻ്റെ ആയതുകൊണ്ട് അതിൻ്റെകൂടെ നമ്മൾ സമ്മാനക്കൂപ്പണും കൂടി നൽകുന്നുണ്ട് ആ സമ്മാനക്കൂപ്പൺ കൂടെ ഉണ്ട് ഇല്ല അത് നമ്മൾ കാറാണ് ഫസ്റ്റ് പ്രൈസ് ആ അതെ അപ്പോൾ നിങ്ങൾ വന്ന് ആയിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ സമ്മാന സമ്മാനക്കൂപ്പൺ ഇണ്ടാവും കേട്ടോ ഇല്ല ഒരു ഒറ്റ വട്ടം പർച്ചേസ് ചെയ്താൽ ഇല്ലെങ്കിൽ വേറെ വേറെ ആൾക്കാരുടേതിൽ ബില്ലടിച്ചാൽ മതി അപ്പം രണ്ടോ മൂന്നോ മതി ആ ഓക്കെ ഓക്കെ ഓക്കെ അതെ എന്തായാലും പോരേ ഓ ഓക്കെ